ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഒരു കേരള സ്റ്റൈൽ നോർമൽ കോട്ടൻ്റെ പ്രിൻ്റെഡ് ആയിട്ടുള്ള ഒരു കുർത്തി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് എന്നാൽ എനിക്ക് ഞാൻ ഉദ്ദേശ ഒട്ടും പ്രതീക്ഷിച്ച പോലെ ഉള്ള ഒരു പ്രോഡക്റ്റ് ഒരു കുർത്തി ആയിരുന്നില്ല എനിക്ക് ലഭിച്ചത് അതിൻ്റെ സൈസും ഫാബ്രിക്കും എല്ലാം ഡിഫ്റിൻറ്റായിരുന്നു ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തത് എക്സൽ സൈസ് ആയിരുന്നു എന്നാൽ എനിക്ക് വന്നത് ഒരു മീഡിയം സൈസ് കുർത്തി ആയിരുന്നു അതു കൊണ്ടു തന്നെ എനിക്ക് കുർത്തി വളരെ അധികം ടൈറ്റായതു കൊണ്ടു തന്നെ ഒട്ടും ഉപയോഗിക്കാൻ ഒട്ടും കംഫോർട്ടബിൾ ആയിരുന്നില്ല അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത് ഒരു കോട്ടൺ ലൈനിംഗോടു കൂടിയ ഒരുകുർത്തി ആയിരുന്നു എന്നാൽ വന്ന കുർത്തിയിൽ ലൈനിങ് ഒന്നും തന്നെ ഇല്ലായി ഇല്ലായിരുന്നു അതൊന്നും കൂടി അതിൻ്റെ ഗുണമേന്മയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇതായിരുന്നു മാത്രമല്ല അതിൻ്റെ ഫാബ്രിക് കോട്ടൺ ആണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഫാബ്രിക്കും കോട്ടൺ ആയിരുന്നില്ല അതുകൊണ്ടു തന്നെ കുർത്തി എനിക്ക് ഓ ഒട്ടും ഗുണമേന്മ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടില്ല അതിൻ്റെ കളറും ബാക്കിയുള്ളതെല്ലാം സെയിം ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ച സൈസ് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ക്ലോത്തും ആയിരുന്നില്ല അതിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുർത്തി ഒട്ടും ഇഷ്ടമായില്ല അതെന്നെ വളരെ അധികം നിരാശപ്പെടുത്തി കളഞ്ഞു അതു കൊണ്ട് ഒരു പരുപാടിക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത് ഓർഡർ ചെയ്തതിരുന്നത് അതിനുപോലും എനിക്ക് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാന് ഇത് പറ്റിയില്ല